ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യമെന്ന സിനിമയാണ് ഞാൻ കണ്ടത് കണ്ടപ്പോൾ എനിക്കാ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഭർത്താവ് എനിക്ക് പുസ്തകം മേടിച്ചോണ്ട് വന്നു ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊത്തിരിം നല്ല കാര്യങ്ങളറിയാൻ പറ്റി എനിക്ക് അതിനകത്തുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒത്തിരി അറിവുകൾ നേടുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നു ഒത്തിരിം കഷ്ടപ്പാടുകൾ നമുക്കാ പടം ഒത്തിരിം കഷ്ടപ്പാടിലെങ്ങനെ നമുക്ക് വിജയിച്ച് കരകയറി വരാം എന്നൊരിതുമാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത് അതിൽ നമുക്ക് ഒത്തിരിം നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവർക്ക് നല്ലത് പറയാനും നല്ലത് ചെയ്തു കൊടുക്കാനും ഒക്കെ ഉള്ള ഒത്തിരിം നല്ലൊരു പുസ്തകമാണത് അത് മറ്റുള്ളവർക്കത് പകർന്ന് കൊടുക്കാനും മറ്റുള്ളവരെ കൊണ്ടത് വായിപ്പിക്കാനും എല്ലാത്തിനും നമുക്കതൊരു പ്രയോജനപ്പെടുത്തുന്നൊരു കാര്യമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് എന്താ പറയാ വായിച്ചാൽ വളരും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് കണക്ക കണക്ക നമുക്കൊത്തിരി അറിവുകൾ നേടുന്ന കാര്യമാണ് ഇപ്പോഴത്തെ മനുഷ്യർക്ക് ആര്ക്കും വായിക്കാനായിട്ട് നേരമില്ല കൂടുതൽ നേരവും റ്റീ വീലും ഫൊണ്ലേക്കുമാണ് മനുഷ്യന്റെ ശ്രദ്ധ ആകര്ഷിക്കുന്നത് പക്ഷേ പുസ്തകങ്ങളുമായിട്ട് ഒരു മനുഷ്യനും അടുക്കുന്നില്ല പക്ഷേ പുസ്തകങ്ങൾ വായിക്കുമ്പം കൂടുതൽ കൂടുതൽ നമ്മൾ ഒത്തിരിം അടുത്തടുത്തങ്ങ് വരും നമുക്കൊത്തിരിം അറിവുകൾ കിട്ടും ഒത്തിരിം നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പറ്റും അത് കൂടുതൽല് കൂടുതലും നല്ലൊരിതാണ് പുസ്തകങ്ങളാണ് നമുക്കേറ്റോം നല്ലത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയത്തില്ലെങ്കിൽ പുസ്തകങ്ങൾ നോക്കുക അതൊക്കെ നോക്കി നമുക്കൊരോ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ എല്ലാത്തിനും നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമാണ് പുസ്തകങ്ങൾ